എട്ട് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് നാല് അഞ്ച് രണ്ടായിരത്തി എട്ട് ഏഴ് ആറ് രണ്ടായിരത്തി മൂന്ന് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്